യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം എൻ്റെ ജീവിതം തുടങ്ങുന്നത് പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് പ്രാർത്ഥനക്ക് ശേഷം പിന്നെ മറ്റേ ഇത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ദേവാലയത്തിൽ പോകും ദേവാലയത്തിൽ പോയി ദിവ്യബലി പങ്കെടുത്തതിന് ശേഷം വീട്ടിൽ വന്നിട്ട് മറ്റ് തൊഴിലിടത്തിലേക്ക് പോകുന്ന തൊഴിലിടത്തിൽ ചെന്നാലും പ്രാർത്ഥനയോട് കൂടിയാണെൻ്റെ ഒരു ദിവസത്തെ മംഗളകർമ്മം തുടങ്ങുന്നത് റബ്ബർ വെട്ടാണെൻ്റെ തൊഴിൽ റബ്ബർ അത് വെട്ടി കറ എടുത്ത് ഷീറ്റ് ആക്കി വേറെ മെഷീനിൽ അതടിച്ച് അത് ഉണങ്ങാനിടും ഉണങ്ങാനിട് ഈ സ് സമയങ്ങളിലെല്ലാം എൻ്റെ മനസ്സിൽ പ്രാർത്ഥനയോട് കൂടിയാണിത് ചെയ്യുന്നത് പ്രാർത്ഥന കൂടാതെ മ് ഒരു ജീവിതമില്ല എൻ ഞാനൊരു ക്രിസ്ത്യൻ മത വിശ്വാസിയാണ് ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയോട് കൂടിയാണ് എല്ലാ കാര്യങ്ങളും തുടർന്ന് പോകുന്നത് അത് അതിൻ്റേതായ ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് അങ്ങേയറ്റം വിശ്വാസകരമായ ജീവിതമാണ് തുടർന്ന് പോരുന്നത് ദൈവാനുഗ്രഹം ഇല്ലാത്ത ഒരു അവസ്ഥയേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല എല്ലാ മംഗള കർമ്മത്തിലും മുമ്പ് ദൈവത്തെ വിളിച്ച് പിന്നെ പ്രാർത്ഥനാ സഹായം യാചിച്ചിട്ടാണ് ഓരോ മംഗളകർമ്മവും തുടങ്ങുന്നത് ആ അത് മറ്റ് ഇങ്ങനെ തുടങ്ങുന്ന മംഗളകർമ്മങ്ങളിൽ ചിലത് ഒക്കെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ തമ്പുരാനോട് വീണ്ടും ഞാൻ പ്രാർത്ഥന ചോദിച്ച് പ്രാ അത് ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി കിറ്റിയിട്ടുള്ള സാഹചര്യങ്ങൾ ആണെൻ്റെ ജീവിതത്തിൽ അനവധിയായിട്ട് ഉള്ളത് എൽ എല്ലാ മംഗളകർമ്മത്തിനും ദൈവ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ യാചിക്കും അത് എൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് ദൈവാനുഗ്രഹത്തിൻ്റെ ആ കുറവ് ഒരിക്കലും എനിക്ക് ഇതുവരേയും ഉണ്ടായിട്ടില്ല എൽ എല്ലാ ജീവിത സാഹചര്യത്തിലും ഇത് ഞാൻ തുടർന്ന് കൊണ്ട് പോകുന്നു

പ്രാർത്ഥന കൂടാതെ ഒരു ജീവിതം എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഉണ്ടായതാ ആ കാരണത്താൽ എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് തന്നെയാണ് പര്യവസാനിച്ചിട്ടുള്ളത് അത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത് എല്ലാം മംഗളകരമായിട്ടാണ് നടന്നത്